ഇപ്പം പഴയ തലമുറ എന്ന് പറയുന്നത് അവർ പഴയ ആൾക്കാരായിരിക്കണം മീൻസ് ഓൾഡ് ഏജ് ആയിരിക്കണം മാത്രമല്ല അവർ കാടുകളിലെല്ലാം ആയിരിക്കണം ജീവിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ ചപ്പുകളും മൃഗങ്ങളെ വേട്ടയാടിയിട്ടൊക്കെ ആയിരിക്കും അവർ ഭക്ഷിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ തോലൊക്കെ ആയിരിക്കും അവരുടെ ഉടുവസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അവർ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഉയരങ്ങളിലെത്തിന്ന് പറയാം വേണമെങ്കിൽ ഇപ്പം ടെലിവിഷൻ ഫോണ് എല്ലാം എഡിറ്റഡ് ആണ് ഗെയിമിൽ ആണെങ്കിലും ഫോണിലൊക്കെ ആണെങ്കിലും എഡിറ്റഡാണ് മധ്യതലമുറ എന്ന് പറയുന്നത് പഴയ ആൾക്കാരെ നോക്കീറ്റും അവർ പഠിക്കുന്നുണ്ട് പുതിയ ആൾക്കാരെ നോക്കിയിട്ടും പഠിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പഴയ വസ് പഴയ വസ്ത്രങ്ങളാണ് ഇപ്പോഴത്തെ പുതിയ മോഡലെന്ന് പറഞ്ഞിട്ട് അവർ ധരിക്കുന്നത് വസ്ത്രങ്ങളായാലും ഒർണമെന്റ്സ് ആയാലും എല്ലാം ചെരുപ്പോ എല്ലാം ഫാൻസി ഐറ്റംസെല്ലാം വസ്ത്രങ്ങളെല്ലാം എല്ലാ ആഭരണങ്ങളും എല്ലാം ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാം പഴയ തലമുറകൾ നോക്കിയിട്ടാണ് അവരിപ്പം ന്യൂ ജനറേഷനായിട്ട് തരം തിരിച്ചിരിക്കുന്നത് ഇതാണ് പഴയതും പുതിയ തലമുറയും ആയിട്ടും മധ്യ തലമുറകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും നടത്തികൊണ്ടിരിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ്